ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുണ്ടോ എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല അങ്ങനെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗോന്നും ഇതുവരെ ആയിട്ടില്ല കൂടുതലായിട്ടും ഗെയിം കളിക്കാറൊക്കെയുണ്ട് അതായത് കളിക്കാറ് കളിയ്ക്കാൻ വല്യ താല്പര്യമൊന്നുമില്ല എന്നാലും എല്ലാരും കളിക്കാനൊക്കെ കളിക്കുകയൊക്കെ കാണുമ്പോ അതായത് ലുഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളിക്കുന്ന ഒക്കെ കാണുമ്പോ അതായത് അവരു പറഞ്ഞുതരും എങ്ങനെയാണ് കളിക്കണത് എങ്ങനെയാണ് കളിക്കണത്ന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് കളി കാണാനൊരു ആഗ്രഹം ഉണ്ടാവും ജസ്റ്റ് ഒന്ന് കളിച്ചോക്കും അത്രേ ഉള്ളു അങ്ങനെയൊക്കെയേ കാണാറ് കാണാറുള്ളു പിന്നെ പബ്ജി പിന്നെ ഫ്രീ ഫയർ അങ്ങനെയുള്ളതൊന്നും ഞാനങ്ങനെ കാണാറില്ല കാരണം എനിക്കിങ്ങനെ ഗെയിംനോട് അഡിക്ട് ആകുന്നതൊന്നും എനിക്ക് വല്യ താൽപര്യോല്ല്യ എനിക്ക് അങ്ങനെ ഫോണിൽ കുറെ നേരം കുത്തിപ്പിടിച്ചിരിക്കുന്നതൊന്നും താൽപര്യവുമില്ല അതുകൊണ്ട് തന്നെ ഞാനങ്ങനത്തെ ഗെയിം ഗെയിം കാര്യങ്ങളെക്കുറിച്ചു അതായത് ശ്രദ്ധിക്കാനേ പോകാറില്ല അപ്പം അതുകൊണ്ടുതന്നെ ഞാനൊരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയുടെ അംഗമൊന്നും ഇതുവരെ ആയിട്ടില്ല പിന്നെന്തെന്നുവച്ചിട്ടുണ്ടെങ്കിൽ അത് കളിക്കാറുണ്ട് പറയുന്നപോലെ പിന്നെ എന്നുവെച്ചാൽ പണ്ടൊക്കെ ചെറിയ കട്ടപ്പെട്ടീൽ സ്നൈക്കിൻറെ ഒരു ഗെയിം ഉണ്ടായിരുന്നു അത് കളിക്കുമായിരുന്നു പിന്നെ ലുഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊൾ കളിക്കാറ് അപ്പം എനിക്കങ്ങനെ ഗെയിംനോട് വല്യ താല്പര്യമില്ലാത്തതുകൊണ്ടുതന്നെ ഞാൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗോന്നും ഇതുവരെ ആയിട്ടില്ല